ഞങ്ങളുടെ പ്രദേശത്തെ സ്പോട്സിന്റെ വികസനത്തിനും സ്പോട്സിന്റെ പ്രോത്സാഹനത്തിനും എല്ലാത്തിനും വളരെ അധികം പിന്തുണ നൽകുന്ന ഒരു കമ്പനി അല്ലെങ്കിലൊരു സ്ഥാപനമെന്നു പറയുന്നത് മുത്തൂറ്റിന്റെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ് ഇവർ ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികളെ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് കായിക പരിശീലനത്തിനാവശ്യമായ സൗകര്യങ്ങളും കളിസ്ഥലങ്ങളുമെല്ലാം ഒരുക്കിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കായികത്തിനാവശ്യമായ സാമഗ്രികൾ അതിനാവശ്യമായ എല്ലാ തരത്തിലുള്ള സാമഗ്രികളും ഇവർ കൊടുക്കുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എല്ലാം കൊണ്ടു പോകാനുള്ള ധന സഹായങ്ങൾ നൽകുവാനും അവർക്കാവശ്യമായ ജേഴ്സികൾ നൽകുവാനും എല്ലാത്തിനും വളരെ അധികം സഹായിക്കുന്നുണ്ട്